എൻ്റെ അടുക്കൽ ഇപ്പോൾ ഒരു ഒരു ഒരേ ഒരു പുസ്തകമാണ് ഉള്ളത് അത് ബെന്യാമിൻ്റെ ആടുജീവിതം എന്നുപറയുന്ന ഒരു പുസ്തകമാണ് ഒരുപാട് പത്താം ക്ലാസിൽ പഠിക്കുക പത്താം ക്ലാസ്സിലൊരു ഒരു പാഠം തന്നെയായിരുന്നു ഞങ്ങൾക്ക് പഠിക്കാൻ ആടുജീവിതം അത് തൊട്ട് ഞാൻ ഒരുപാട് അതിലൊരു ചെറിയൊരു ഭാഗം അല്ലെ ഉണ്ടാകൊള്ളൂ അപ്പോൾ ഒരുപാട് കൊതിച്ചിരുന്നു അത് വായിക്കണം എന്ന് പിന്നെ അതൊരു വാങ്ങിയതെന്നു വച്ചാൽ ഈ ബുക്ക് സ്റ്റാളിലൊക്കെ ഉണ്ടാവും ബുക്ക് സ്റ്റാൾ ഞാൻ ഒരു ബുക്ക് സ്റ്റാളിൽ നിന്നായിരുന്നു വാങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ എല്ലാ വായിച്ചാലും വായിച്ചാലും കൊതിമാറാത്ത ഒരു പുസ്തകമാണത് നമ്മുടെ ആ കഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നു പിന്നെ വേറെ ചെറിയ കുഞ്ഞ് കുഞ്ഞ് കുട്ടി കുട്ടി പുസ്തകങ്ങളാണ് അല്ലാതെ വലിയൊരു വലിയൊരു ശേഖരം ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ ഇതൊക്കെ ഇതൊക്കെ തന്നെയെ ഉളളൂ